കൃഷിയെ ഏറെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ നല്ലൊരു നല്ല രീതിയിലുള്ള കൃഷി നടത്തുന്നുണ്ട് ഞാൻ എൻ്റെ കൃഷി സ്ഥലം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന മാർഗം പമ്പു വഴിയാണ് പമ്പു വഴിയാണ് ജെ ചെടികൾക്ക് വെള്ളം എത്തിക്കുന്നത് തീർച്ചയായിട്ടും അതിനുപരി തന്നെ ഞാൻ മഴയെ ആശ്രയിക്കാറുണ്ട് മഴയെ ആശ്രയിക്കുന്നെന്നു പറയുമ്പോൾ മഴക്കാലത്ത് ചെറിയ മഴ കുഴികൾ നിർമ്മിച്ച് അതുപോലെ തന്നെ മഴ കുഴികൾ നിർമ്മിക്കുന്നതിലുപരി ചെറിയ

പിന്നീട് ആവശ്യമുള്ള സമയത്ത് അത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് വെള്ളപൊക്കോം മൺസൂൺ വെള്ളപൊക്കമൊക്കെ വരുന്ന സാഹചര്യത്തിൽ പൊങ്ങിയ പുരയിടത്തിൽ കൃഷി ചെയ്താൽ പോലും തന്നെ നമുക്ക് കൃഷിയെ സാരമായിട്ടത് ബാധിക്കാറുണ്ട് എന്നിരുന്നാൽ പോലും തന്നെ നല്ല രീതിയിൽ പൊക്കിത്തന്നെയാണ് കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊക്കി വൃത്തിയായിട്ട് വെള്ളം ജലമൊന്നും മഴവെള്ളമൊന്നും വെള്ളപൊക്കമോ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്